നമ്മുടെ നാട്ടിലിപ്പം കലാകാരന്മാർ ആരും തന്നെയില്ല എല്ലാം ഇപ്പം ഡിജിറ്റല് ആയിട്ടും അങ്ങനെയൊക്കെ ആണ് ഇപ്പോൾ നടക്കുന്നത് ഫോണിലൂടെ അതിന്റെ ഓരോ ഏപ്പുകളുണ്ട് അതിലൂടെയൊക്കെ ആണ് ഇപ്പം ഈ വരയ്ക്കൽ അങ്ങനെയുള്ള ഡ്രോയിങ്സിൻ്റെ എല്ലാ പരിപാടികളും ഇപ്പം നടക്കുന്നത് അതാകുമ്പോൾ എളുപ്പത്തിൽ ഫോണില് കൂടി ഓരോ ഷേപ്പിലുള്ള പെൻസിൽസും അതൊക്കെ ഉള്ളതുകൊണ്ട് അതിലൂടെയാണ് ഇപ്പോൾ എല്ലാ വര്ക്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൈകള് കൈ കൊണ്ട് വരയ്ക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടിപ്പം നമ്മുടെ നാട്ടിലെന്നു പറയുമ്പോൾ കലാകാരന്മാരൊന്നും ഇല്ല എല്ലാവരും ഇപ്പം ഓരോ ഏപ്പുകളും അല്ലെങ്കിൽ ഇപ്പം ലാപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടര് അങ്ങനെയുള്ള സാധനങ്ങളിലാണിപ്പം അവർ വരച്ചുകൊണ്ടിരിക്കുന്നത് അതിലെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഓരോരോ ഷേപ്പിലുള്ള പെന്സിലുകളും അതിന്റെ ഷെയ്ഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലം ഉള്ളതുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പം അങ്ങനത്തെ രീതിയിലാണ് ചെയ്യുന്നത് ഈ കൈയ്യും കൊണ്ട് വരയ്ക്കുന്നവരെല്ലാവരും ഇപ്പം വളരെ കുറവാണ് അതിലൂടെയാവുമ്പോൾ ഈ ലാപ്പിലൂടെയൊക്കെ ആവുമ്പോൾ നല്ല രീതിയില് ഇതാക്കുകയും ചെയ്യാം അതിൽനിന്നുതന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പെർഫെക്ഷനൊക്കെ കിട്ടും അതുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പം അങ്ങിനെയാണിപ്പൊൾ ഉപയോഗിക്കുന്നത്